മതത്തെക്കുറിച്ച് പഠിക്കുന്നത് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അതു നമ്മൾ ഞാൻ പഠിച്ചപ്പോഴത്തേക്കും സ്കൂളുകളിലൊക്കെ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് ആ ക്രിസ്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഇത്ര സമയം നമുക്ക് തരും അങ്ങനെ ഓരോ സ്കൂളുകളിൽ ഓരോ മതത്തിൻ്റെ ഇതിലനുസരിച്ച് ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ പിന്നെ ഗവൺമെന്റ് അത് നമുക്കങ്ങനെ അതങ്ങ് ഈ ഇത് തന്നിട്ടില്ല അത് അനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് മതത്തെക്കുറിച്ച് നമ്മൾ പിള്ളേർക്ക് പറഞ്ഞുകൊടുക്കുന്നത് നല്ലെയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ സ്കൂളുകളിലൊക്കെയാണ് നമ്മുടെ വിശ്വാസം എല്ലാം സംരക്ഷിക്കാനും എല്ലാം നമ്മുടെ സ്കൂളുകളിൽ അതാത് മതത്തിൻ്റെ അതാത് മതത്തിൻ്റെ ഇതിൽ നമ്മൾക്ക് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ഇതിൽ അവർക്ക് ഒരു ക്ലാസ്സ് എടുക്കും പിന്നെ ക്രിസ്ത്യൻസ്സാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ നമ്മൾക്ക് ക്ലാസ്സുകളെടുക്കും അങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങനെ ഓരോ പിരീഡുകൾ അനുസരിച്ചാണ് നമ്മൾക്ക് ക്ലാസ്സ് അറേഞ്ച് ചെയ്തു തരുന്നത് പിന്നെ നമ്മൾക്ക് മതത്തെക്കുറിച്ച് പഠിക്കുന്നത് നമ്മൾ പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല ജീവിതത്തെയും സമൂഹത്തെയും കുറിച്ച് അറിഞ്ഞ് ഉള്ള വീക്ഷണം അതു നമ്മൾ എത്രത്തോളം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോയിച്ചാൽ നമ്മൾക്ക് നമ്മൾക്ക് മതത്തെക്കുറിച്ച് നല്ല വിശ്വാസവും നല്ല ഇതും എല്ലാം നമ്മൾക്ക് തരുന്നയൊരു കാര്യമാണ് മതം ഒരു അതാത് മതത്തിൻ്റെ ഇത് നമ്മൾക്ക് തരും തരുന്നത് അത് നമ്മൾക്ക് ഒരു നല്ലെയൊരു കാര്യം തന്നെയാണ് സ്കൂളുകളിലും ഇപ്പം പക്ഷേ സ്കൂളുകളിലൊക്കെ എനിക്ക് അറിഞ്ഞുകൂട സ്കൂളുകളിലൊക്കെ ഇതുണ്ടോയെന്നുള്ളത് നമ്മൾക്കറിഞ്ഞുകൂട ഇപ്പം ഗവൺമെന്റ് അതിനായിട്ട് അംഗീകരിച്ച് അംഗീകാരം കൊടുത്തിട്ടുമില്ല അപ്പം അതിനെപ്പറ്റിയിട്ട് ആ അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാനായിട്ട് പറ്റത്തില്ല സ്കൂളൊ പാഠ്യപദ്ധതി ആയിട്ടാണ് ആണ് നടത്തുന്നത് നല്ല ഇതായിട്ട് നടത്തുന്നു